ഞാൻ വാങ്ങിയ ഒരു എക്സാം ഗൈഡ് അതിന്റെ പറ്റിയുള്ള ഒരു റിവ്യൂ ആണ് ഗൈഡിൽ പല പാളിച്ചകളും കാണാൻ പറ്റി പല സ്ഥലങ്ങളിലും ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ആയിട്ടു കണ്ടില്ല പല ക്വസ്റ്റ്യൻസ്സും പഴയതാണ് അതുപോലെതന്നെ പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ തെറ്റായ രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നതാണ് അതുപോലെത്തന്നെ ചില ചോദ്യങ്ങളുടെ കൃത്യത വ്യക്തത വളരെ കുറവാണ് നൽകിയ ചിത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടും പലതും മാഞ്ഞു പോകുവാനും തുടങ്ങിയിട്ടുണ്ട് അതുകാരണം പലതും ഒക്കെ നല്ല രീതിയിൽ വായിച്ചു മനസ്സിലാക്കി പഠിക്കുവാനുള്ള ഒരു ഇത് കുറവാണ് പിന്നെ ബൈൻഡിങ്ങിനു ക്വാളിറ്റി കുറവായിരുന്നു